മഴക്കാലത്തെ കുറിച്ച് പറയുകയാണെങ്കില് ഞങ്ങളുടെ നാട്ടില് ഏറ്റവും കൂടുതല് മഴ ലഭിക്കുന്നത് ജൂണ് ജൂലൈ മാസങ്ങളിലാണ് അതുകഴിഞ്ഞാൽ പിന്നെ ഒക്ടോബർ നവംബർ സമയങ്ങളിൽ നല്ലപോലെ മഴ ലഭിക്കാറുണ്ട് ഈ അടുത്ത ഇടയായിട്ട് എല്ലാ ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിൽ മഴ ലഭിക്കാറുണ്ട് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഇവിടെ മിക്കവാറും ദിവസങ്ങളിൽ കറണ്ട് കട്ടായിരിക്കും അതുപോലെതന്നെ വഴികളിലും പറമ്പിലും എല്ലാം ഇഷ്ടംപോലെ വെള്ളം കയറും നമ്മുടെ ഇവിടത്തെ താരതമ്യേന താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ വെള്ളം കേറി ആൾക്കാർക്ക് ജനജീവിതം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അവരുടെ എല്ലാം വീടുകളില് കിണറുകളില് എല്ലാം വെള്ളം കയറാറുണ്ട് അതേസമയം അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ്റ് ക്യാമ്പുകളൊക്കെ ഓപ്പൺ ചെയ്യാറുണ്ട് അപ്പം അവരെ ക്യാമ്പ് പ്രദേശങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കാറുണ്ട് അതുപോലെ അവർ തിരിച്ചുവരുമ്പത്തേക്കും അപ്പം അത് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വീടിൻറ്റകത്തെല്ലാം ഭയങ്കരമായിട്ട് വെള്ളം കേറി ചെളി നിറഞ്ഞ് തന്നെയല്ല രോഗങ്ങളും ബാധിക്കാൻ ചാൻസുണ്ട് പിന്നെ കുട്ടനാട് കുമരകം പ്രദേശങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് അവിടുത്തെ ജന ജീവിതത്തെ റോഡ് ബ്ലോക്ക് ആകുന്നതു മൂലം ജനങ്ങളെ വല്ലാതെ ബാധിക്കാറ്ണ്ട്